ഇവിടെ എന്നോടിപ്പം ചോദിച്ചിരിക്കുന്നത് മലയാളത്തിൽ ഏതെങ്കിലും പ്രിയങ്കരമായൊരു എഴുത്തുകാരൻ ഉണ്ടോ എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യാ എൻ്റെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം വളരെ ഹൃദയത്തോട് അടുപ്പിച്ചിട്ടുള്ള കൃതികളാണ് എങ്കിലും എനിക്ക് പ്രത്യേകമായ ചില കൃതികളായി തോന്നുന്നത് വിട മാമ്പഴം എനിങ്ങനെ പല പ്രത്യേക കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാലും മാമ്പഴമാണെൻ്റെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കവിത എന്ന് പറയുന്നത് ആ ഒരു കൃതിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഏറ്റവും വലിയ പ്രത്യേക എന്ന് പറയുന്നത് മാതൃത്വത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് ഒരു അമ്മക്ക് മകനോടുള്ള സ്നേഹം മരിച്ച് പോയാലും തീരില്ല ജീവിതകാലം മുഴുവൻ നീണ്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് മാമ്പഴത്തിൻ്റെ കൃതി മാമ്പഴത്തിൽ ഏറ്റവും ചെറിയ ലളിതമായ ഒരു വസ്തുതയായ മാമ്പഴം ആ ഒരു മാമ്പഴം കാണുമ്പോൾ പോലും ആ അമ്മക്ക് ആ മകനെ ഓർമ്മ വരികയും മകന് ആ ഒരു മാമ്പഴം എടുക്കാൻ പോയപ്പോൾ മകനെ തല്ലിയതോർക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളിലൂടി ഏറ്റവും വലിയ മാതൃസ്നേഹം കാണിച്ച് തന്ന അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് വൈലോപ്പിള്ളിയുടെ കൃതികൾ വളരെ പ്രശസ്തവും വളരെ പ്രത്യേകവുമാകാൻ കാരണം അദ്ദേഹം ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് അർത്ഥങ്ങൾ കണ്ട് പിടിക്കും ഏറ്റവും ചെറിയ ഒരു പഴത്തിൽ പോലും ഇത്രയധികം വൈകൃതം അവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത